ഞാൻ സ്കൂളിൽ വച്ച് ചിത്രരചന പഠിച്ചിട്ടുണ്ട് അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ചിത്ര രചന പ്രത്യേക ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കാനോ അതിന് ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല കാരണം എനിക്ക് അധികം താത്പര്യം ഇല്ലാത്തത് കൊണ്ട് ചിത്ര രചന ഞാൻ പഠിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല കലാകാരന്മാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന നല്ല കോളേജുകൾ പാലക്കാട് ജില്ലയിൽ ഇഷ്ടം പോലെയുണ്ട് ഒന്നാമത് മ്യൂസിക് കോളേജ് ചെമ്പൈ മ്യൂസിക് കോളേജിൽ നന്നായി മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട് അത് ഡിഗ്രി തലം വരെയും പി ജി തലം വരെയൊക്കെ ഉള്ള കോളേജാണ് കൂടാതെ ചിറ്റൂർ ഗവണ്മെൻറ്റ് കോളേജ് അവിടെയും മ്യൂസിക് പ്രത്യേക വിഷയമായി എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി കലയെ ഒരു കലയെ അഭ്യസിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ജീവിതാഭിലാഷം നേടുകയും ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുകയും ചെയ്യും കലക്ക് അത്ര മാത്രം പ്രാധാന്യമുള്ള ഒരു കാലത്താണ് ഇന്ന് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്ന ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് മ്യൂസിക്കിനെയോ അല്ലെങ്കിൽ നൃത്തത്തേയോ അതുപോലെയുള്ള ഏതെങ്കിലും കല ഏതെ നാം ഓരോരുത്തരും അഭ്യസിച്ചിരിക്കണം എന്നുള്ള നിലയിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കലാ സാംസ്കാരിക രംഗത്ത് എല്ലാ കുട്ടികളും മുൻപന്തിയിൽ തന്നെയാണ്